ഞാൻ ഒരു ഒരു അഞ്ചാം ക്ലാസ്സിൽ ഒക്കെ എത്താനായപ്പോഴാണ് പുതിയൊരു സ്കൂളിലേയ്ക്ക് മാറിയത് അതായത് ഒന്നു തൊട്ട് നാലുവരെ ഒരു സ്കൂളിൽ പഠിക്കുകയും അതു കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു സ്കൂളിലേയ്ക്ക് മാറുകയും ചെയ്തു അപ്പം അഞ്ചാം ക്ലാസ് തൊട്ടാണ് ആദ്യമായിട്ട് ഞാൻ ഡ്രോയിങ്ങ് ക്ലാസ് അറ്റന്റ് ചെയ്തു തുടങ്ങിയത് അതായത് അവിടെ ആ സ്കൂളിൽ പ്രത്യേകമായിട്ട് ഡ്രോയിങ്ങിനു വേണ്ടി തന്നെ ഒരു സാറിനെ അവിടെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോയ്ന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ക്ലാസ്സിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം നമ്മളെ ഓരോരോ കാര്യങ്ങൾ പഠിപ്പിക്കാനും വരയ്ക്കാനും പഠിപ്പിക്കാനൊക്കെ സാർ ഭയങ്കര ഇന്ററസ്റ്റ് കാണിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അപ്പോൾ നമ്മൾക്ക് പുതിയൊരു ഡ്രോയിങ്ങ് അനുഭവമൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് കാരണം ഓരോ കാര്യങ്ങളും കൃത്യമായി കൃത്യമായി ആ സാർ നമ്മളെ വരയ്ക്കേണ്ടത് എങ്ങനെ ആണെന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു അപ്പം എനിക്ക് എൻ്റെ ഒരു ഇത് വച്ചു നോക്കുമ്പോൾ അവരു പഠിപ്പിച്ചു തരുന്നതൊക്കെ വച്ചു നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ഡ്രോയിങ്ങ് കല കുറച്ചുകൂടി ഇൻപ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു കാരണം ഡ്രോയിങ്ങ് ഒക്കെ പഠിച്ചപ്പോഴത്തേക്കും എനിക്ക് കുറേക്കൂടി വരയ്ക്കാൻ ഉള്ള കഴിവ് കൂടി കൂടി വന്നു പിന്നെ എനിക്ക് എന്നെ സംബന്ധിച്ചു വര എനിക്ക് ഭയങ്കര ഇഷ്ടം ഉള്ളൊരു കാര്യമാണ് ഡ്രോയിങ്ങ് ഒക്കെ അപ്പോൾ ഡ്രോയിങ്ങ് പഠിക്കാൻ എനിക്കതിൽ വലിയ ചാൻസ് ആയിട്ടാണ് ഞാൻ കണ്ടിട്ട് കണ്ടിരുന്നത് കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഡ്രോയിങ്ങ് എന്തുകൊണ്ടും എനിക്കതിൽ ബെറ്റർ ആയിട്ടാണ് തോന്നിയത്